അതെ അതെ പറയൂ ഓക്കെ

ഓക്കെ രണ്ട് ദിവസം ആയി അല്ലേ തുടങ്ങിയിട്ട് എന്താണ് രണ്ട് ദിവസം മുന്നേ ഫുഡ് കൊടുത്തിരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഡെയിലി ദിവസവും ഈ പെറ്റ്സിനെ നമുക്ക് ഡെയിലി നോൺ വെജ് കൊടുക്കാൻ പറ്റില്ല അവർക്കത് ദഹനം നടക്കില്ല അവരുടെ പ്രോപ്പർ ആയിട്ട് ദഹനം നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ നോൺ വെജ് കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദഹിച്ചിട്ടില്ല അവർ കഴിച്ചത് ശരിക്ക് ദഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ക്ഷീണവും വോമിറ്റിങ്ങ് ഒക്കെ ഉണ്ടായത് ഇല്ലില്ല വേറെ കുഴപ്പമൊന്നും ഇല്ല അതുതന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി രണ്ട് ദിവസം അതിന് വേറെ ഫുഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഭക്ഷണം ഒന്നും കൊടുക്കരുത് ഒന്നും കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഇളനീരില്ലേ ഇളനീർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ആ ഇളനീർ വെള്ളം മാത്രം കൊടുത്താൽ മതി ചിലപ്പോൾ കുടിക്കില്ല അപ്പോൾ കുറച്ച് ക കംമ്പെൽ ചെയ്തിട്ട് ഒന്നുകൂടി നിർബന്ധിച്ച് കൊടുക്കണം ആ ഓക്കെ എന്നുവെച്ചുകഴിഞ്ഞാൽ വാവഴി വായിൽ സ്പൂൺ കൊണ്ട് കയറ്റി അങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ അത് നേ കഴിക്കില്ല മിക്കവാറും ചാൻസ് കുറവാണ് കുടിക്കാൻ അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്ക് ഇല്ലയില്ല വേറെ ഒന്നും കൊടുക്കേണ്ട ഇളനീർ ആക്ച്വലി ശരീരത്തിന് നല്ലതാണ് അവരുടെ അവരുടെ ദഹനം പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളനീർ വെള്ളം കൊടുക്കുന്നത് ആ അതെയതെ മ കഴിച്ചോളും

ഇല്ല ആക്ച്വലി എന്താണെന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ ഈ പെറ്റ്സിനൊക്കെ രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാണ്ട് രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാണ്ട് പോവാം കുഴപ്പമില്ല അവർക്ക് അത് സസ്റ്റേയ്ൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഇളനീർ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ അത് അത്യാവശ്യത്തിന് എനർജിയും ഒക്കെ കൊടുക്കും ഇവൻ ആ ഓക്കെ വേറെ ഭക്ഷണം ഒന്നും കൊടുക്കേണ്ട

ഓക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും നമ്മുടെ റൗണ്ടിൽ ആണ് വരുന്നത് ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓ ഓക്കെ ഓക്കെ ബൈ